ചെറുപ്പത്തിലൊക്കെ ഞാൻ കുറേ ഡ്രോയിങ്ങ് ക്ലാസിലൊക്കെ പോയിട്ടുണ്ട് അപ്പം അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കാനൊക്കെ അറിയാമായിരുന്നു ഒരു ഒരു വലുതായപ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കാനൊക്കെ അറിയാമായിരുന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് അടുത്തുള്ള പിള്ളേരൊക്കെ ചെറുതായിട്ടൊക്കെ ഡ്രോയിങ്ങ് ക്ലാസ് ഒക്കെ എടുത്ത് തുടങ്ങി ചെറുതായിട്ട് അവരെ വരപ്പിക്കാനൊക്കെ തുടങ്ങി അവർ വരയ്ക്കുന്നതൊക്കെ കണ്ട് അവർക്ക് നന്നായിട്ട് അവരെ എല്ലാ സപ്പോർട്ട് ഒക്കെ ചെയ്യും പിന്നെ അവരുടെ തെറ്റുകളൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കും പിന്നെ ആദ്യമേ ഒക്കെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്താണ് പറയുക വരയ്ക്കുന്നതൊന്നും പെർഫെക്റ്റ് ഒന്നും ആവത്തില്ല ആദ്യമേ ഞാനൊരു പൂച്ചേനെ ആയിരുന്നു വരച്ചത് അപ്പം ആ പൂച്ചേൻ്റെ തല അങ്ങ് ശരിയായിട്ടില്ലായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കുറേ പ്രാവശ്യം മായ്ച്ചൊക്കെ വരച്ച് നല്ല അടിപൊളി ആക്കിയായിരുന്നു പിന്ന നല്ല ഷേഡ് ഒക്കെ ചെയ്ത് നല്ല ഒരു പൂച്ചയായിട്ട് വരച്ചു പിന്നെ ഇച്ചിരി കൂടി ടഫ് ഉള്ള പട്ടീനെ തന്നു അങ്ങനെ പട്ടീനെ നോക്കി വരയ്ക്കാനായിരുന്നു അപ്പം നമ്മൾ ആദ്യമേ നോക്കുന്നത് പോലെ ആയിരിക്കില്ല പട്ടി പിന്നെ നിൽക്കുന്നത് അപ്പം പട്ടീൻ്റെ ഷേപ്പ് ഒക്കെ പിന്നെ മാറിപ്പോയിരുന്നു പിന്നെ ഒന്ന് ശരിയാകുമ്പോഴത്തേക്കും പട്ടി വേറെ ഷേപ്പിലായിരിക്കും നിൽക്കുന്നത് അങ്ങനെ പിന്നെ കെട്ടിയിട്ട് വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ കെട്ടിയിട്ട് ഒരു വിധത്തിലൊക്കെ വരച്ച് മേലൊക്കെ ശരിയായി അപ്പം മുഖം ആണെങ്കിൽ ഒട്ടും ശരിയാകുന്നില്ലായിരുന്നു അങ്ങനെ മുഖം ഒക്കെ ഒരു തരത്തിൽ കുറേ പ്രാവശ്യം മായ്ചിട്ടൊക്കെ വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ ഒരു വിധത്തിൽ പട്ടീനെ ശരിയാക്കി പിന്നെ നമ്മൾ ആനേനെ വരയ്ക്കാനായിരുന്നു പഠിപ്പിച്ചത് ആനേൻ്റെ കാലും മേലൊക്കെ ശരിയായി പിന്നെ അതിൻ്റെ തലയും തുമ്പി കയ്യും അങ്ങനെ അത്രയ്ക്ക് അങ്ങ് ശരിയാകുന്നില്ലായിരുന്നു അപ്പം അതും കുറേ പ്രാവശ്യം മായ്ച്ച് നന്നായിട്ട് വരയ്ക്കാൻ പഠിച്ചു പിന്നെ ഒരു മനുഷ്യനെ ആയിരുന്നു വരയ്ക്കാൻ പഠിച്ചത് അതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ളത് കാരണം മനുഷ്യൻ്റെ ബോഡി വരയ്ക്കാനാണെങ്കിലും അതിന്റെ മുഖം അത്രയ്ക്ക് അങ്ങ് ശരിയാവുന്നില്ലായിരുന്നു കാരണം അതിൻ്റെ കണ്ണും മൂക്കൊന്നും അങ്ങനെ ഒരു ഒരു ശരിയായ രീതിക്കങ്ങ് വരുന്നില്ലായിരുന്നു ഒരു മനുഷ്യനെന്ന രൂപമൊന്നും അതിനില്ലായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ ആദ്യമേ കണ്ണിങ്ങനെ കണ്ണ് തന്നെ വരച്ച് പഠിച്ചു പിന്നെ മൂക്ക് തന്നെ വരച്ച് വരച്ചു അങ്ങനെ ഷേപ്പ് ഒക്കെ വരച്ച് ഏകദേശം ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുഖം ഒക്കെ വരച്ചു കണ്ണ് അതിലൊക്കെ ആഡ് ചെയ്ത് കണ്ണും മൂക്കൊക്കെ വരച്ച് അത്യാവശ്യം നല്ലൊരു മനുഷ്യനെ ആക്കി പിന്നെ ഒരാളെ നോക്കി വരയ്ക്കാൻ നോക്കി അതും ചെറുതായിട്ടൊക്കെ പാളിപ്പോയി എന്നാലും കുറേ ഒക്കെ പരിശ്രമിച്ച് ഏകദേശം ഒക്കെ അയാളുടെ രൂപത്തിലെത്തി അതുപോലെ തന്നെ ആയിരുന്നു ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളും ആദ്യമൊന്നും അത്രയ്ക്കങ്ങ് ശരിയാവത്തൊന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ അത് നല്ല രീതിക്ക് വരാൻ തുടങ്ങി ആദ്യമേ അവർക്ക് പൂമ്പാറ്റേനെ ആയിരുന്നു കൊടുത്തത് പൂമ്പാറ്റേനെ എല്ലാവർക്കും വരയ്ക്കാൻ അറിയുന്നത് പോലെ തന്നെയായിരുന്നു പിന്നെ അവരോട് ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ളത് വരച്ചോളാൻ പറഞ്ഞപ്പം അവർ ഒരു സാധാരണ എല്ലാവരും വരയ്ക്കുന്നത് പോലെ ഞാനും വരച്ചിരുന്നത് പോലെ ഒരു മലയും സൂര്യനും ഒരു വീടും ഒരു മരവും വേലിയൊക്കെയിരുന്നു വരച്ചത് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വരച്ചു പിന്നെപ്പിന്നെ പട്ടീനെയും മനുഷ്യനെ ഒക്കെ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു അവർക്ക് എന്നാലും അവർ അവർക്ക് പറ്റുന്നത് പോലെ നന്നായിട്ട് രീതിയിൽ വരച്ചു കുറച്ചൊക്കെ തെറ്റി പോയെങ്കിലും കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് നന്നായിട്ട് വരയ്ക്കാനായിട്ട് പഠിച്ചു അതുപോലെ തന്നെ ആയിരുന്നു ഞാനും അങ്ങനെ കുറേ പേർ അങ്ങനെ ഞാൻ പഠിപ്പിച്ചിട്ട് വരയ്ക്കുന്നത് കാണുമ്പം എനിക്ക് നല്ലൊരു സന്തോഷമായിരുന്നു പിന്നെ ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു വരച്ചതെന്ന് എനിക്ക് ഓർക്കാൻ പറ്റി പിന്നെ നല്ല രസമായിരുന്നു അന്ന് അപ്പോഴൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നതും പിന്നെ അവർ വരയ്ക്കുന്നത് കാണുന്നതും അവരുടെ മിസ്റ്റേക്ക് പറഞ്ഞ് കൊടുക്കുന്നതൊക്കെ നല്ലതായിരുന്നു എന്താണ് പറയുക പിന്നെ നമുക്കും കുറേ ഒക്കെ അറിവ് നേടും ഇങ്ങനെ വരച്ചാൽ ശരിയാവത്തില്ല അങ്ങനെ വരച്ചാലെ ശരിയാവൂളളൂ എന്നൊക്കെ അങ്ങനെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ അവർ വരയ്ക്കുന്നതൊക്കെ ടിക്ക് ഇട്ട് കൊടുക്കാൻ അവർ വരയ്ക്കുന്നതൊക്കെ കാണാനൊക്കെ പറ്റും പിന്നെ അങ്ങനെ നല്ല രീതിക്ക് എല്ലാവരെയും വരയ്ക്കാനൊക്കെ പഠിപ്പിച്ചു അത്യാവശ്യം ഇപ്പോഴും എനിക്ക് അത്യാവശ്യമൊക്കെ വരയ്ക്കാനറിയാം അങ്ങനെ കുറേ പേരൊക്കെ വരച്ച് പഠിപ്പിക്കാനും തുടങ്ങി ചെറുതായിട്ടൊരു ഡ്രോയിങ്ങ് മ ഡ്രോയിങ്ങ് ക്ലാസ് പോലെ ഒക്കെ ആയായിരുന്നു പിന്നെ പിന്നെ ചെറുതായിട്ടൊക്കെ ശില്പങ്ങൾ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്ര കാര്യമായിട്ട് അറിയത്തില്ലെങ്കിലും അറിയാവുന്നത് വെച്ചങ്ങ് പഠിപ്പിച്ച് ഏകദേശം ഒക്കെ ഒന്ന് ശരിയായി വരുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഡ്രോയിങ്ങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ ആയിരുന്നു എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്